ഹലോ ഡോക്ടർ സോനയല്ലേ ഹലോ ഡോക്ടർ ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുകയാണേ എൻ്റെ പേര് സീന ഞാനാണെങ്കിൽ നിതാരയുടെ അമ്മയാണേ എൻ്റെ ഡോക്ടർ ഡോക്ടറേ ഞാനാണെങ്കിൽ എൻ്റെ കുഞ്ഞ് രണ്ട് വർഷം ആയിട്ട് നടക്കുന്നില്ല എത്ര കൊണ്ട് കുറേ ഡോക്ടർമാരെ കാണിച്ചിട്ടും കൊച്ചിന് റിയാക്ഷനൊന്നും ഇല്ല ഇപ്പം ഡോക്ടറേയും കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഡോക്ടർ നല്ല ചികിൽസയ്ക്ക് ചികിൽസിക്കാനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പം അപ്പം എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ ഡോക്ടർ

ഒരു വയസ്സാവുന്നത് സാധാരണ അതിന് മുന്നേ പിള്ളാർ നടക്കാറുണ്ട് പക്ഷെ എൻ്റെ കുട്ടി മാത്രം നടക്കുന്നില്ല രണ്ട് വയസ്സായിട്ടും അവിടെ കൂടെ കളിക്കുന്ന പിള്ളേരൊക്കെ നടക്കുന്നു അപ്പോൾ കുഞ്ഞിന് നടക്കാൻ പറയും തോറും ആ കൊച്ച് ക്ഷീണിച്ചിട്ട് അതായത് പക്ഷെ നടക്കാൻ പറ്റും കാൽ കാലിൽ ഭയങ്കര വേദനയൊക്കെ പറയുന്നു ഇത് കാണുമ്പോൾ നമ്മൾക്കൊരു സങ്കടമല്ലേ ഞങ്ങൾ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു പക്ഷേ മരുന്ന് കഴിക്കുന്നതല്ലാതെ കുഞ്ഞിനൊരു മാറ്റവും ഞാൻ കാണുന്നില്ല എക്സസൈസ് ഡോക്ടർമാർ ചെയ്യിക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ ചെയ്യിച്ചിട്ടും ഒരു മാറ്റവും കാണുന്നില്ല അപ്പോൾ എനിക്ക് സ്കാനൊക്കെ ചെയ്തിരുന്നു എന്നിട്ടും ഒരു റിസൾട്ടും ഇല്ല കാലിന് ചെറിയൊരു വളവുണ്ടെന്ന് അതിനകത്ത് പറയുന്നുണ്ട് പക്ഷെ അത് ഡോക്ടേഴ്സ് പറഞ്ഞത് എക്സർസൈസ് ചെയ്താൽ മാറുമെന്നാണ് പക്ഷെ ഇതുവരെ ആയിട്ടും മാറിയില്ല കൊല്ലം ഇല്ല ലൊക്കേഷൻ അയച്ചാൽ മതി

ഡോക്ടറപ്പോൾ എന്ന് ഡോക്ടറപ്പോൾ എന്നും ഉണ്ടോ ആ ആ ആ ശരി ഡോക്ടർ ഡോക്ടർ അപ്പം ഞങ്ങൾ നാളെ വന്നാൽ മതിയോ നാളെ വന്നാൽ ഡോക്ടറുണ്ടല്ലോ ആ പിന്നെ ഡോക്ടർ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രതീക്ഷയാണ് അപ്പം എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഒന്ന് നടത്തിക്കണം ആ കൊച്ച് പിന്നെ ഇപ്പോൾ രാത്രി വേദന പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെയ്യണോ മരുന്ന് വല്ലതും കൊടുക്കണോ ഡോക്ടറ് മറ്റേ ഡോക്ടർ മറ്റേ ഡോക്ടേഴ്സ് രണ്ടും മരുന്ന് തന്നിരുന്നു പക്ഷെ അത് പെയിൻ കില്ലറല്ല അത് ഉപയോഗിക്കും തോറും കൊച്ചിന് കാല് വേദന കൂടുന്ന അല്ലാതെ കുറയുന്നില്ല

ആ ശരി ഡോക്ടർ ആ ശരി ഓക്കെ